ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ആദ്യകാലത്തൊക്കെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ വിനോദസഞ്ചാരകേന്ദ്രങ്ങളൊക്കെ വളരെ കുറവാണ് കുറവാണെന്നല്ല നമ്മുടെ സ്ഥലത്ത് അതായത് നമ്മുടെ ജില്ലകളിലോക്കെണ്ടെങ്കിലും ആൾക്കാർ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ കുറെ ന്യൂ ജെനെറേഷൻ ആൾക്കാരൊക്കെ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ച് അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ വാട്സപ്പില് അതായത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടും അപ്പം അത് കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ ഓ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജില്ലയിൽതന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് നമുക്ക് കാണാം ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പൊക്കെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഏകദേശം എല്ലാം ഫേയ്മസായി തുടങ്ങി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി എല്ലാം അതായത് നമ്മള് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ടുടെങ്കില് ആള്ക്കാര് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോവും ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടങ്കില് ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ പുറമെ നിന്നും നമ്മുടെ അതാത് ജില്ലയിലേക്കും നമ്മുടെ സംസ്ഥാനത്തേക്കൊക്കെ വരുന്നുണ്ട് അപ്പൊന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമ്മളെ നമ്മുടെ കേരളമെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ദൈവത്തിൻ്റെ നാടാണന്നാണല്ലോ ആണല്ലോ അപ്പൊന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമ്മുടെ നാടിനെ കാണാന് ഒരുപാട് നാട്ടിലെ വ്യത്യസ്ത വ്യത്യസ്ത സ്ഥലങ്ങൾ കാണാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്